ആ എടാ ഞാനേ മീഷോയിലൊര് പവർ ബാങ്ക് ഓർഡർ ചെയ്തായിരുന്നെടാ അത് ആദ്യം വന്ന പവർ ബാങ്ക് സൂപ്പറായിരുന്നു പിന്നെ അത് കഴിഞ്ഞൊര് ഫോൺ ഓർഡർ ചെയ്തു ഫോണ് ഭയങ്കര നമ്മള് എന്താ പറയുക കണ്ട ഫോണല്ല വന്നത് വിവോൻ്റെ വി ട്വൻറ്റി വൺ ഫൈ ജി ആണെ ഓർഡർ ചെയ്തത് അതല്ല ഫോണ് വന്നേക്കുന്നത് അപ്പോൾ ബാറ്ററിയും നിൽക്കുന്നില്ല ഭയങ്കര ഹാംഗിഗുവാണ് ഫോട്ടോസൊന്നും ക്ലിയറില്ല വെറുതെ ക്യാഷ് പോയി ഇനി റിട്ടേൺ കൊടുക്കാൻ പറ്റുമോ റിട്ടേൺ ചെയ്യാൻ പറ്റുകയില്ലെ റിട്ടേൺ ചെയ്താൽ എത്ര ദിവസം കൊണ്ട് തിരിച്ച് വരുമെടാ അത് ഭയങ്കര ബാഡായി പോയെടാ അത് ശ്ശെ ഫോണിത്ര വൃത്തികേട് ഒന്നും നമ്മൾ എന്താ നല്ല ഫോൺ പ്രതീഷിച്ച് ഓർഡർ ചെയ്തിട്ട് അവര് നമുക്ക് തിരിച്ച് അല്ലെങ്കിൽ പൈസ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുമോ തിരിച്ച് ക്യാഷ് ഇട്ട് തരുമോ അവര് ആ ആ അത് റിട്ടേൺ കൊടുക്കുക അവര് വന്നെടുക്കുമായിരിക്കും അല്ലേ അവരുട് ആൾക്കാർ തന്നെ വന്നെടുത്ത് കൊണ്ട് പോകുവായിരിക്കും അല്ലെ ഇല്ലെടാ ഫോണ് ചാർജൊട്ടും നിൽക്കുന്നില്ല ചാർജ് ഫുൾ ചാർജാക്കി നൂറ് ശതമാനം ചാർജായാൽ തന്നെ പെട്ടെന്ന് യൂസ് ചെയ്യുമ്പം തന്നെ പത്ത് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഓഫായി പോകുകയാണ് ആണോ എന്താ നോക്കുന്നത് ആ റിട്ടേൺ കൊടുത്ത വിടായിരിക്കും റിട്ടേൺ വന്ന് എടുത്തുകൊണ്ട് പോകും അല്ലേ എന്നാൽ ശരി എടാ ഓക്കെ